എന്റെ അടുത്തുള്ളൊരു കോളേജ് ആണ് എസ് എന് കോളേജ് ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ കോളേജ് ആണ് എസ് എന് ഒരു കുറേ മഹാന്മാർ പഠിച്ച കോളേജ് ആണ് അവിടം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു കോളേജു കൂടിയാണ് എന്റെ ചേച്ചിയും അവിടെ തന്നെയാണ് പഠിച്ചത് ചേച്ചി അവിടെ ബി എ മലയാളം ആയിരുന്നു പഠിച്ചത് ഏറ്റവും കൂടുതല് മാതൃഭാഷ തന്നെ പഠിക്കുന്നതിനോടു തന്നെ നമുക്ക് ഒരുപാട് അറിവുകളും പകര്ന്നു നല്കുന്ന ഒരു വിദ്യാലയം പോലെ തന്നെയായിരുന്നു ആ കോളേജ് എസ് എന് കോളേജിന്റെ കാലഘട്ടവും അവിടുത്തെ പരിപാടികളും അവിടുത്തെ ഓരോ നിമിഷവും ഞാന് ഓര്ക്കുന്നു എന്റെ ചേച്ചി പഠിക്കുമ്പോള് തന്നെ എനിക്കവിടെ നിന്ന് ഒരുപാട് കഥകള് കേട്ടറിയാം ഞാനും പലപ്പോള് ചേച്ചിയുടെ കൂടെ പോയി കണ്ടിട്ടും ഉണ്ട് എനിക്ക് അവിടെ പണ്ടുതൊട്ടേ ഒരുപാട് മഹാന്മാര് പഠിച്ചെന്നു കേള്ക്കുമ്പോ തന്നെ നമുക്ക് ആരാധനയായിരുന്നു അങ്ങനെ അവിടുത്തെ ഓരോ വിശേഷങ്ങള് കേൾക്കുമ്പോഴും നല്ല സന്തോഷമായിരുന്നു ചേച്ചിയുടെ കൂടെ പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണാന് കഴിഞ്ഞതിലും സന്തോഷം തന്നെയുണ്ട് ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല കോളേജ് ആയിരുന്നു എസ് എന് കോളേജ് അവിടുത്തെ എന്റെ ചേച്ചി പഠിച്ചതുകൊണ്ട് തന്നെ എനിക്ക് അവിടുത്തെ കോളേജിനെപ്പറ്റി നല്ല അഭിപ്രായം തന്നെയാണ് പഠിച്ചത് കൊണ്ട് നമുക്ക് അറിയാമല്ലോ നല്ല നല്ല കോളേജ് ആണെന്ന് ഒരുപാട് മഹാന്മാര് പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അത്രയും നല്ല കോളേജ് ആണ് എന്ന്